എസ് ബി ഐ ബാങ്കാണോ മാനേജർ സാറാണോ സാർ ഞാനൊരു ഗോൾഡ് ലോണിൻ്റെ കാര്യം തിരക്കണതിനു വേണ്ടിയിട്ടാണ് വിളിച്ചത് സാറെ എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷനു വേണ്ടിയിട്ട് വേണമായിരുന്നു എൻ്റെ അച്ഛന് ഹാർട്ട് ഓപ്പറേഷനു വേണ്ടിയിട്ട് അഞ്ചുലക്ഷം രൂപ വേണം പക്ഷെ എൻ്റെ കയ്യിൽ പത്തു പവൻ സ്വർണം മാത്രമേ ഉള്ളൂ ലോൺ ഗോൾഡ് പത്ത് പവൻ കിട്ടുമോ സാറേ അങ്ങനെ

അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം തികച്ച് കിട്ടില്ലേ സാറേ

ആ ഉം സാറിൻ്റെ സാർ എങ്ങനെയെങ്കിലും ഞങ്ങളെ എങ്ങനെ എങ്ങനെയെങ്കിലും സാർ ഇത്തിരി മുൻകൈ എടുത്ത് എനിക്ക് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കാര്യമായതുകൊണ്ടാണ് സാറേ എങ്ങനെയെങ്കിലും സാർ ഒന്നു ശരിയാക്കിത്തരണം ഈ ലോൺ

വരാം സാറേ ഇത് ജനുവരി ഒന്നിനാണ് അച്ഛൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ ഗോൾഡ് ലോൺ അത് ഒരുപാട് താമസം എടുക്കുമോ എനിക്ക് പെട്ടെന്ന് ആ ആ ഈ പലിശയൊക്കെ എങ്ങനെയാണ് സാറേ

ഒരുപാട് പലിശയൊക്കെ വന്നാൽ ഞങ്ങൾക്ക് അടയ്ക്കാനുള്ള പ്രാപ്തി ഞങ്ങൾക്കില്ല സാർ അതുകൊണ്ടാണ് സാറിൻ്റടുത്ത് കേട്ട ഞങ്ങൾക്കീയൊരു അത്യാവശ്യമായതുകൊണ്ട് അതു നടത്താതിരിക്കാനും പറ്റില്ല സാറേ

അപ്പം വർഷത്തിൽ ഇങ്ങന നമ്മൾ പൈസ ഇങ്ങനെ ഇത് വരണതനുസരിച്ച് പലിശ വർഷത്തിലടച്ചാൽ മതിയോ സാറേ ആ അപ്പോൾ ഈ മുതലും പലിശയും കൂടി അങ്ങ് അടഞ്ഞുപോകുമോ സാറേ ആ ആ ആ പിന്നെ ഞാൻ എന്തായാലും ഞാൻ തിങ്കളാഴ്ച ഓഫീസിൽ ബാങ്കിൽ വരാം സാറേ എനിക്ക് എന്തരായാലും ഓപ്പറേഷനാണല്ലോ മുഖ്യം സാറേ

ഓ ഓ ഓക്കേ ശരി സാറേ